ഗ്രാമപ്രദേശത്തെ പാരമ്പര്യ സവിശേഷതയെ പ്രചരിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും ഈ പരമ്പരാഗതമായ കളികൾ വളരെയധികം സ്വാധീനം ചെലത്തുന്നുണ്ട് എന്തെന്നു വച്ചാൽ പുതു തലമുറയിലെ ആളുകൾക്ക് പരമ്പരാഗതമായ കളികളെപ്പറ്റി ഒരു ധാരണയും ഉണ്ടാവില്ല പണ്ടത്തെ കളികളായ കളികളായ കുട്ടീം കോല് ഗോലികളി ഈ കളികളെപ്പറ്റിയൊന്നും ഒരു അറിവും ഉണ്ടാവില്ല ഇപ്പോൾ ഇതെല്ലം നമ്മൾ അവർക്ക് പറഞ്ഞയു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പണ്ടു രീതിയിലുള്ള കളികളെപ്പറ്റിയും ധാരാളം അറിവ് കിട്ടും അത് അവർക്ക് നമ്മുടെ സംസ്കാരത്തെ എന്താ പറയുക നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് കാരണം ഈ കളികൾ പ്രചരിപ്പിക്കുവാനും എല്ലാം അവരെക്കൊണ്ട് നമ്മളത് സജ്ജമാക്കേണ്ടത് അത്യാവശ്യമാണ് ഇതു വളരെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ പാരമ്പര്യത്തെ നശിക്കാതെ സൂക്ഷിക്കാൻ ഈ പരമ്പരാഗതമായ കളികൾ വളരെയധികം സ്വാധീനം ചെലത്തുന്നുണ്ട്